കലയിൽ ഏർപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം എക്സ്പോഷർ ലഭിക്കുന്ന ഒരു കാലമാണ് അവരുടെ ഈ ടാലൻസ് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് അതിനു റെവന്യൂ ജനറേറ്റ് ചെയ്യാനും ഒരേ ഒരുപാട് അധികം ഇൻഫ്ലുവെൻസ് ഇപ്പോൾ ഇൻഫ്ളുവൻസസ് നമ്മുടെ യൂട്യുബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ നമുക്ക് കാണാം ഈ പറഞ്ഞതു പോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലാണ് മാഡ് എന്നുപറഞ്ഞ പോഗോ എന്ന ചാനലിൽ വന്നിരുന്ന ഒരു ആർട്ട് ആൻഡ് ഗ്രാഫിൻ്റെ ഷൂട്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞതു പോലെ കലകളെ ഒരുപാടു അധികം എക്സ്പോഷർ കൊടുക്കുകയും അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് അധികം എക്സ്പോഷറും അവർക്ക് ഫീഡ് ബേക്കോടും കൊടുത്ത് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയ ഒരുപാട് തലങ്ങളെ ഹെല്പ് ചെയ്യുന്നുണ്ട്